ഇന്ത്യയിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരുടെ പാർട്ടികള് ഓരോ പാർട്ടികളും അവരുടേതായ പ്രത്യേകതകളും ഉണ്ട് അതുപോലെതന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടികളിൽ തന്നെ പിന്നേ അതുപോലെത്തന്നെ ഇപ്പോൾ ഞാനൊരു എസ്എഫ്ഐ അല്ല ഞാനൊരു കോൺഗ്രസ്സ് ആണെങ്കില് എനിക്ക് ജോലിയുണ്ടാകും കോൺഗ്രസ്സാണ് ഭരിക്കുന്നെയെങ്കില് അതുപോലെയാണ് എല്ലാ എല്ലാ പാർട്ടികളും നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയില് പിന്ന അവരുടെ ഓരോ പാർട്ടിയിലും അംഗത്തമുള്ളവർക്കോ അവരുടെ ആവശ്യങ്ങള് നിറവേറ്റാൻ വേണ്ടിയിട്ടോ അവർ ഓരോ പ്രവ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവരുടെ സ്വയം ആവശ്യങ്ങള് നടത്തി കൊടുക്കുന്നു